നൃത്തം പലതരത്തിലുള്ളതുണ്ടെങ്കിലും ഭാരതത്തിൽ ഭരതനാട്യമാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നതും അത് ആസ്വദിക്കുന്നതും ഞാൻ എനിക്ക് താൽപര്യം ഭരതനാട്യമാണ് നൃത്തങ്ങളിൽ ഭരതനാട്യം ഭാരതത്തിൻ്റെ ഭരതനാട്യമാണ് ഞാൻ ആസ്വദിക്കുന്നത് കാരണം അതിൽ അതിൽ ഒരു ഭാരതീയതയുണ്ട് കൂടാതെ അതിൻ്റെ മുദ്രകളും ചുവടുവെപ്പുമെല്ലാം ഒരു എക്സസൈസ് പോലെ ശരീരത്തിന് വഴങ്ങുന്ന ശരീര മികവിനുവേണ്ടി അല്ലെങ്കിൽ ശരീര ആ ഘടന വഴങ്ങുന്നതിന് നല്ലതായിട്ട് കാണാറുണ്ട് ഈ നൃത്തമാണ് ഞാൻ ചെറുപ്പം മുതൽ കണ്ടു വളർന്നതും അത് കണ്ടാണ് ഞാനാസ്വദിക്കുന്നതും